നമുക്ക് റേഡിയോയിലൂടെ കേൾക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതേസമയം ഫോണിലൂടെയാണെങ്കിൽ നമുക്ക് കേൾക്കാനും കാണാനും ഒക്കെ പിച്ചേസ്സ് എല്ലാം കൊടുക്കും എല്ലാം സാധിക്കും അതുപോലെത്തന്നെ പത്രങ്ങൾ പത്രങ്ങളെ നമുക്ക് വിഷ്വലൈസേഷൻ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ അതായത് ഫോട്ടോസ് മാത്രമേ നമുക്ക് പത്രങ്ങളിലൂടെ കിട്ടത്തുള്ളൂ പിന്നെ ന്യൂസ്കള് നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റും വായിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കൂടുതലും നമുക്ക് മൊബൈൽ തന്നെയാണ് പക്ഷേ മൊബൈൽല് ഒരുപാട് ദുരൂപയോഗപ്പെടുത്താതെ അതായത് നമ്മൾ വായനയിലൂടെയും അതിൻ്റെ കാഴ്ചയിലൂടെയും അത് കണ്ട് മുന്നോട്ട് പോവാൻ വേണ്ടി ശ്രമിക്കുകയാണ് പിന്നെ മൊബൈൽ ഫോൺ പിന്നെ മൊബൈൽ ഫോണ് കുട്ടികളിലൂടെ കൊടുക്കയാണെങ്കിൽ അത് അത് ദുരുപയോഗപ്പെടുത്താനും ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ അറിവ് നേടുന്നതിന് എന്തായാലും മൊബൈല് തന്നെയാണ് നല്ലത് പത്രങ്ങളിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് ഈ മാധ്യമങ്ങൾ ഏതെങ്കിലും ഒക്കെ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ പത്രങ്ങൾ പത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്രങ്ങൾ എല്ലാ സ്ഥലത്തും എത്താൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എല്ലായിടത്തും എത്തിപ്പെടാൻ റിമോട്ട് ഏരിയയിലൊക്കെ എത്തിപ്പെടാനുള്ള വിഷയങ്ങളുണ്ട് അപ്പം അതേസമയം മൊബൈൽലോ ആണെങ്കിൽ പിന്നെ മൊബൈൽൻ്റെ ഒരു വിഷയം എന്നു പറയുന്നത് നമുക്ക് നെറ്റ് നെറ്റ് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെയും വിഷയങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പം എന്തൊക്കെയായാലും നമുക്ക് ഈ മീഡിയകൾ എല്ലാം ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട് ഉപയോഗിക്കണം അതനുസരിച്ച് തന്നെ അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നത് റേഡിയോകളാണ് സോറി മൊബൈലും മൊബൈൽ ആണ് അതിൽ വിഷ്വലൈസേഷനൂണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ട് മനസിലാക്കാനും അതുപോലെ നമുക്ക് വായിക്കാനും ഉള്ള സമയം പെട്ടെന്ന് കണ്ടെത്താൻ നമുക്ക് പറ്റുന്നുണ്ട് റേഡിയോയിലൂടെ നമുക്ക് റേഡിയോയിലൂടെ പരിമിതികളുണ്ട് പരിമിതിയെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് റേഡിയോയിലൂടെ കിട്ടാൻ സാധ്യതയില്ല അവർ പ്രക്ഷേപണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് റേഡിയോയിലൂടെ നമുക്ക് നമ്മുടെ കയ്യിൽ എത്തുന്നുള്ളൂ മൊബൈൽ ആണെങ്കിൽ നമുക്ക് ഏതൊരു കാര്യം നോക്കിയാലും നമ്മൾക്ക് കണ്ടെത്തി സേർച്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ വിഷ്വലൈസേഷനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് ആ ഒരു ടോപ്പിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ എല്ലാ അതിൻ്റെ പാസ്റ്റ് കഴിഞ്ഞകാലങ്ങളും ഇപ്പോഴും നടക്കുന്നതും എല്ലാം നമുക്ക് മൊബൈലിലൂടെ നേടാൻ സാധിക്കുന്നുണ്ട് അപ്പം മൊബൈല് അന്നെയാണ് ഏറ്റവും നല്ലത് പത്രം പത്രം എന്ന് പറയുമ്പഴത്തേക്കും ഒരു ഒരു ദിവസത്തെ ഇന്നത്തെ ന്യൂസ് അല്ലെങ്കിൽ നമുക്ക് കറണ്ട് ആയിട്ടുള്ള ഇപ്പം കിട്ടുന്ന ന്യൂസുകൾ മാത്രമേ നമുക്ക് പത്രങ്ങളിലൂടെ കിട്ടുന്നുള്ളൂ ഇപ്പം ഇന്ന് ഇട്ട ന്യൂസ് നമ്മൾ കാണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം നമുക്കത് പിന്നെ അത് കാണാനുള്ള സാധ്യത അത് അല്ലെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണ് പത്രങ്ങളിൽ എല്ലാ ന്യൂസ്കളും നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള ഓരോ ജില്ലകളിലെ അങ്ങനെയുള്ള ന്യൂസുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ അപ്പോൾ എന്തൊക്കെയായാലും മൊബൈൽല് എന്ത് സേർച്ച് ചെയ്താലും നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും കാര്യങ്ങളും മൊബൈൽലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് മൊബൈല് തന്നെയായിരിക്കും